ഹലോ പറഞ്ഞുകൊള്ളൂ എവിടെ എവിടെയാണ് ആ സ്ഥലം എത്ര സെൻറ് സ്ഥലമുണ്ട് ആ നമുക്ക് അമ്പതൊന്നും വേണ്ട നമുക്കൊരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം മതി

മ് എ

നമ്മള് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്തിന് ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്തു വിലയാണ് വരുന്നത് അവിടെ

ആ ഏകദേശം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അല്ലേ ആ അപ്പം നമ്മുടെ ബസ്സോടുന്ന റൂട്ടാണോ

ആ അതുശരി വഴി എങ്ങനെയുണ്ട് വഴി എങ്ങനെയുണ്ട് വഴിയൊക്കെ നല്ല വഴിയാണോ ആ കുഴപ്പമില്ല അല്ലേ ആ വെള്ളം വെള്ളം നല്ല നല്ല വെള്ളമാണോ വെള്ളം വെള്ളം നല്ലതാണോ അതുശരി ആ ഉം പിന്നെ ആ

ആ പിന്നെ ഞാൻ ചോദിച്ചത് നമുക്ക് എന്തു വിലയ്ക്ക് നമുക്ക് ലാസ്റ്റ് നമുക്ക് തരുവാനൊക്കും ആ പത്ത് രൂപയെ കുറയുകയുള്ളുവോ അപ്പം നമുക്ക് അധികം താമസിയാതെ നമുക്ക് ആധാരം നടത്തിയാല് നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് കുറയ്ക്കാം പെട്ടെന്ന് തന്നെ ആധാരം നടത്താമെങ്കില് ആ നമുക്കധികം വലിയ വലിയ താമസമില്ലാതെ നമുക്ക് നടത്താം അങ്ങനെയാണെങ്കില് പെട്ടെന്ന് നമുക്ക് ആധാരം അത് നിങ്ങള് കൈകാര്യം ചെയ്തുകൊള്ളണം നിങ്ങള് ഒരാളല്ലേ ബോക്കറുള്ളൂ നമുക്ക് പിന്നെ നമ്മളൊരു പീസിന്റെ തന്നാല് പോരെ

ആ കമീഷന് ഇപ്പം ഇപ്പം നിലവിലുള്ള കമിഷൻ തരാം അതിനൊന്നും മടിയൊന്നുമില്ല അതൊന്നും ഇപ്പം നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കില് നമുക്ക് നടന്നാല് നമുക്ക് നിലവിലുള്ള കമീഷനൊക്കെ തരാം അല്ലാതെ കൂടുതലില്ല നാട്ടുനടപ്പില്ലേ ഇതിനൊക്കെ ഒരു നാട്ടുനടപ്പില്ലേ അതല്ല നമുക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാശ് തരും ബസ്സ് കാണാനായിട്ട് ഇപ്പോള് ഏത് ഭാഗത്തായിട്ടാ ഈ ബസ്സ് ബസ്സുള്ളത് ആ തിരുത്തിക്കും വാഴപ്പിള്ളിക്കും ഇടയ്ക്കല്ലേ ആ അതുശരി ആ അപ്പം നമുക്ക് നമുക്ക് ആധാരം പെട്ടെന്ന് ആധാരം നടത്തുകയാണെങ്കില് ഇത്തിരിയൊരു ന്യായമായിട്ട് കുറച്ചുതരുമോ ആ ശരി ശരി ഞാൻ നോക്കട്ടെ നമുക്ക് നല്ല വസ്തുവാണെങ്കില് ഞാന് അത് നമുക്ക് കൈയില് കൊടുക്കാം വസ്തു മോശമാണെങ്കില് നമ്മള് ആ വീട് കൂട്ടി വേണ്ട നമ്മള് വീട് പണിയാനുള്ള പ്ലാനിലാണ് ആ അതല്ല നമ്മള് വീട് കൂട്ടിയുള്ള പരിപാടിയൊന്നുമില്ല വീട് വീട് പണിയാനുള്ള പരിപാടിയിലാണ്

ആ ഞാൻ വിളിക്കാം ഈ നമ്പറേയുള്ളുവോ വേറെ വല്ല നമ്പറുമുണ്ടോ ഇല്ലല്ലോ ആ ആ നമ്പറൊന്ന് പറഞ്ഞേ കേള്ക്കട്ടെ ആ ആ എന്നാല് ശരി ഞാൻ വിളിച്ചുകൊള്ളാം ആ ശരി ശരി